ഞങ്ങൾക്ക് എല്ലാ പക്ഷി നിരീക്ഷണ പാരമ്പര്യം ഉണ്ടോന്ന് ചോദിച്ചാൽ പക്ഷി നിരീക്ഷണ പാരമ്പര്യം ഉണ്ട് ഈ എന്താ പറയുന്നത് ഈ ഒറ്റ മൈനേനൊക്കെ കണ്ടാല് അന്നത്തെ ദിവസം കൊള്ളത്തില്ല അല്ലേ അന്നത്തവുസം ഇപ്പം എന്തോലും ക്ലാസ്സിൽ പോയാലും വല്ല അടി കിട്ടും നമ്മളെ അങ്ങനത്തെ ഒരു ഇപ്പം ഒറ്റ മൈനേനെ കണ്ടിട്ട് ഇപ്പം പത്ത് തെങ്ങ് എണ്ണുവാണെങ്കില് അടിയൊന്നും കിട്ടത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞെ കേട്ടിട്ടുള്ളത് ഈ അപ്പച്ചമ്മാരും അമ്മച്ചിമാരും ഒക്കെ പറയുന്നത് കേട്ടിട്ടുള്ളത് പിന്നെ വേറെ അങ്ങനെ ക്ലിയറായിട്ട് അറിയത്തില്ല ഈ ഒറ്റ മൈനേനെ കണ്ടാൽ പ്രശ്നമാണ് അന്നത്തെ ദിവസം പോക്കാ എന്നൊക്കെ പറയും വേറെ കിളികള് ആയിട്ട് പ്രശ്നം ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല പിന്നെ പിന്നെ ഒന്നുമില്ല താങ്ക്യൂ